ഇത് വസ്ത്രാ മെറ്റീരിയൽസ് അല്ലെ ഹലോ ഞാൻ വിളിക്കുന്നത് കിടങ്ങറയിൽ നിന്നാണെ എന്റെ ഒരു ഫ്രണ്ട് ആണ് എനിക്ക് നിങ്ങളുടെ നമ്പർ തരികയും നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഞാന് നിങ്ങള് ഇട്ട് തന്നിരിക്കുന്ന ഡ്രസ്സ് മെറ്റീരിയല്സൊക്കെ കണ്ടു എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ മെറ്റീരിയല്സിനെ കുറിച്ച് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു മെറ്റീരിയല് ഡിസ്ക്രിപ്ഷന് ഒക്കെ അത്രയധികം മനസിലാക്കാന് സാധിച്ചില്ല ഏത് മെറ്റീരിയലാണെന്നും അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നും ഒക്കെ ഒന്നും കൂടെ ഒന്ന് അറിഞ്ഞാല് കൊള്ളാമായിരുന്നേ ഞാന് ചെറുതായിട്ട് എന്റെ വീട്ടിൽ ഒരു ചെറിയ ഒരു ഡ്രസ്സ് മെറ്റീരിയല്സ് വില്ക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചു ബള്ക്കായിട്ട് എടുക്കാന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിന്റെ കറക്റ്റ് മെറ്റീരിയല്സ് പിന്നെ ഞാനിത് ഓർഡർ ചെയ്താൽ എത്ര നാളിനുള്ളിലെനിക്ക് ഇത് കിട്ടുമെന്നും പിന്നെ എനിക്ക് എത്ര കമ്മീഷൻ കിട്ടുമെന്നും ഇതൊക്കെ ഒന്ന് അറിഞ്ഞാല് കൊള്ളാമേ അതുപോലെതന്നെ ഒരു സാമ്പിളായിട്ടു എല്ലാ ഐറ്റത്തിന്റെയും ഓരോന്ന് എടുക്കുകയാണെങ്കില് എനിക്ക് അതിന്റെ ഗുണനിലവാരം ഒന്നറിയാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ എന്റെ കസ്റ്റമേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുവാനും സാധിക്കുവായിരുന്നു അപ്പോൾ ഞാന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അയച്ചു തരുമ്പോൾ ഞാന് നേരത്തെ തന്നെ പേമെന്റ് നടത്തണോ അതോ ഇത് കിട്ടിക്കഴിഞ്ഞതിനുശേഷം പേമെന്റ് നടത്തിയാൽ മതിയോ എന്നൊക്കെ ഒന്ന് അറിയാനായിരുന്നു ഓകെ ആലോചിച്ചിട്ട് എന്നേ ഒന്ന് വിളിക്കുവോ ഓകെ താങ്ക്യു